ആ ഒരു ചെറിയ ഒരു വീടിൻ്റെ ഒരു ഒരു ബെഡ്റൂമിൻ്റെ ഒരു ആ ഒരു വീട് അപ്പോൾ നിങ്ങൾ കല്ല് കെട്ടുന്ന മേസ്ത്രി അല്ലേ ആ മോ മോളിൽ കെട്ടേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റുമോ

അപ്പോൾ അത് കുറച്ച് തിരക്ക് എനിക്കും തിരക്ക് ഉണ്ടായി പരിപാടി ഇണ്ട് ആ ആ

ആ അത് ഇത് ആ ടൈൽസ്

ആ ആ ആ അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഈ മാസം തന്നെ വരാൻ പറ്റുമോ ആ ഈ മാസം തന്നെ വരാൻ പറ്റുമോ

ആ ആ

ഈ മാസം ലാസ്റ്റ് ചെയ്ത് തരുമോ തീർത്ത് തരണം അപ്പോൾ അപ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ ആ അത് നമ്മൾ മേടിക്കാം ആ ആ ആ ആ കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന പക്ഷത്തിൽ ചെയ്ത് തരണം ആ ആ ആ ആ ആ അതെ ആ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാമല്ലോ അല്ലേ വേറെ ആളെ നോക്കേണ്ടല്ലോ ആ അതെ അതെ നല്ലത് നല്ലത് എല്ലാം സിമൻ്റ് തന്നെ പണ്ടത്തെ

ആ അതെ അതെ

അത് തന്നെ അതെ

ആ അതെ അതെ സാധാരണ മതി അങ്ങനെ ചെയ്ത് ചെയ്ത് തന്നാൽ മതി ആ അതെ ശരി ആ ആ അതെ ആ ശരി